ഞങ്ങളുടെ പ്രദേശത്തെ കുട്ടികളിൽ കുറെയേറെ പിള്ളേര് ഗവൺമെൻ്റ് സ്കൂളിലാണ് പഠിക്കുന്നത് കുറച്ച് സാമ്പത്തികമുള്ള വീടുകളില് കുട്ടികള് വേറെ പുറത്തേക്ക് ഫീസ് കൊടുത്ത് പഠിപ്പിക്കും പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടുള്ള എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും മാതാപിതാക്കളുടെ അടുത്ത് നിന്നും കിട്ടുന്നതാണ് അവർക്ക് വേണ്ടിയിട്ട് ഓരോരോ സാധനങ്ങൾ എടുക്കാനും ചെയ്യിപ്പിക്കാനും ഒക്കെ കു മാതാപിതാക്കൾ മുൻപന്തിയിൽ തന്നെ ഉണ്ട് അതില് കൂടുതലും മാതാ മാതാവായിരിക്കും കൂടുതല് കാര്യങ്ങളും ചെയ്യുന്നത് കുട്ടികള് ഒപ്പം നിന്ന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും എല്ലാം മാതാപിതാക്കൾ ചെയ്തു കൊടുക്കും അതേപോലെ തന്നെ പഠിക്കാനും അവര് സഹായിക്കാറുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞും അക്ഷരങ്ങൾ എഴുതിയും പഠിപ്പിക്കാറുണ്ട്